ആ ഓക്കെ എനിക്ക് ഒരു ആ മൊബൈൽ ഫോൺ വേണമായിരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ

ആ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ഇടയ്ക്കുള്ളത് മതി ആ എല്ലാ സെലക്ടുള്ള സെറ്റപ്പായിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത്

ആ ആ ആ ആ

ആ അത് വേണ്ട നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് മതി

ആ ആ ആയിക്കോട്ടെ ആ ഉടനെ വരാം ആയിക്കോട്ടെ